കേരളത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഒരു കൊച്ച് ജില്ല അതാണ് എൻ്റെ കേരളം കേരളത്തിലെ കാലാവസ്ഥ പ്രത്യേകിച്ചും കേരളത്തിലെ കാലാവസ്ഥ ന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് മൺസൂൺ കാലാവസ്ഥയാണ് മൺസൂൺ കാലാവസ്ഥ കാലാവസ്ഥയെന്ന് പറയുമ്പോൾ അറബ് വേർഡായ മൗസിം എന്ന വാക്കിൽ നിന്നാണ് ഋതുക്കളെന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ മൺസൂൺ കാലാവസ്ഥയാണ് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം ഇങ്ങനെ മൂന്ന് കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള കൊല്ലം ജില്ലയിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായും മഴക്കാലം വേനൽക്കാലം മഞ്ഞുകാലം ഇവിടെ അങ്ങനെ പൊതുവേ കൊല്ലം ജില്ലയിൽ അനുഭവപ്പെടാറില്ല എങ്കിലും നവംബർ ഡിസംബർ ജെനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൊല്ലം ജില്ലയിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടാറുണ്ട് മഴക്കാലമെന്ന് പറയുമ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം കാലം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഈ സമയത്ത് നന്നായിട്ടിവിടെ മഴ ലഭിക്കാറുണ്ട് പലപ്പോഴും വെള്ളപ്പൊക്കവും മറ്റ് അസ്വസ്ഥതകളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാകാറുണ്ട് അത്പോലെ മ പിന്നീട് വരുന്ന തുലാവർഷം നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങൾ അനുഭവപ്പെടുന്ന തുലാവർഷം തുലാവർഷം വൈകുന്നേരത്തോട് ഉച്ചയോട് കൂടി അതിശക്തമായ ഇടിയും മഴയുമായിട്ട് വന്ന് മഴ പെയ്യാറുണ്ട് നമ്മളെ പല തരത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട് എന്നിരുന്നാലും ഈ മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയ്ക്കൊരു പ്രധാന അനുഗ്രഹമാണ് കാരണം ഇവിടത്തെ ജനങ്ങൾ കൂടുതലും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഈ മഴക്കാലമാണ് കൃഷി ചെയ്യാനൊക്കെ ഏറ്റവും സുവർണ്ണമായ കാലഘട്ടമെന്ന് നമുക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന മഞ്ഞ് കാലം മഞ്ഞുകാലം നമ്മളെ അധികം വലിയ രീതിയിൽ ബാധിക്കാറില്ല പിന്നെ വരുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന വേനൽക്കാലമാണ് വേനൽക്കാലം കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലം വളരെ അധികം കടുത്തിരുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന ചൂട് അനുഭവപ്പെടുന്ന പുനലൂരെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് പുനലൂരാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് നിർമ്മിച്ച തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലട ആറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു മുൻസിപ്പാലിറ്റിയും കൂടെയാണ് നമ്മുടെ പുനലൂർ ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലും ആയിട്ടുള്ള ഒന്ന് കേരളത്തിലെ കൊല്ലം ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്നത് കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ജില്ല കൂടിയാണ് നമ്മുടെ കൊല്ലം ജില്ല അപ്പം തീര പ്രദേശ സാമീപ്യമുണ്ട് തീരദേശ സാമിപ്യമുള്ളത് കൊണ്ടും നമുക്ക് പൊതുവേ ചൂട് അനുഭവപ്പെടാറുണ്ട് എങ്കിലും ചൂടിൻ്റെ കാഠിന്യം വളരെ അധികം കൂടാറില്ല പിന്നെ മലനിരകൾ പശ്ചിമഘട്ട മലനിരകളുടെ സാമിപ്യം ഇതൊക്കെ കൊണ്ടും നമുക്ക് മലനിര വളരെ അധികം ആയിട്ട് ഈ സീസൺ നമ്മളെ നമുക്ക് അധികമായിട്ട് അനുഭവപ്പെടാറില്ല എന്നിരുന്നാലും ജനങ്ങളുടെ കാല ജനങ്ങളുടെ ജീവിതത്തെ ഇവിടത്തെ കാലാവസ്ഥ വളരെ അധികം അഫക്ട് ചെയ്യുന്നുണ്ട് പഴയ കാലത്തെ ആൾക്കാർ പഴയ തലമുറയിലെ ആൾക്കാർ പറയുന്നത് പോലെ മുമ്പെങ്ങും ഉണ്ടായി ഇല്ലാതിരുന്ന രീതിയിൽ ചൂട് കൂടുന്നു എന്നുള്ള ഒരു പ്രത്യേകത നമുക്കീ അടുത്ത കാലത്തായിട്ട് അനുഭവപ്പെടുന്നുണ്ട് പ്രതേകിച്ചും ആഗോള ത വൽക്കരണ ആഗോള താപനവും ഇതൊക്കെ മൂലം നമുക്ക് വളരെ അധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ ഈ നമ്മുടെ കാലാവസ്ഥ കാലാവസ്ഥ നമ്മുടെ വസ്ത്രധാരണ രീതിയെ വളരെ അധികം അഫക്ട് ചെയ്യുന്നുണ്ട് അത്പോലെ മറ്റുള്ള കാര്യങ്ങളെ എല്ലാം കാലാവസ്ഥയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട് അത്കൊണ്ട് കേരളത്തിലെ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ കാലാവസ്ഥയിൽ നല്ല രീതിയിലുള്ള മാറ്റോണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജനങ്ങളുടെ സംസ്കാരത്തെയും ജീവിത രീതിയെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥ അത്പോലെ വീടുകളുടെ നിർമ്മാണം കാലാവസ്ഥയ്ക്ക് അനുയോജ്യ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത വീടുകളുടെ നിർമ്മാണമെല്ലാം ചൂട് കൂടുന്നതിനും വസ്ത്രധാരണ രീതിയിലൊക്കെ ചൂട് കൂടുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട് ഏറ്റവും കൂടലാൾക്കാർ ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത് കൃഷിയാണ് പ്രത്യേകിച്ചും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഘലകളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതലാൾക്കാർ ഡിപ്പ് ന്ന് ആശ്രയിച്ചിരിക്കുന്ന കൃഷിയാണ് കൃഷി കൃഷിയാണവരുടെ ദൈനംദിന ജീവിത ഉപാധി